കോഫി ഷോപ്പല്ലേ ലൊക്കേഷൻ

ഹലോ സാറാസ് കോഫി ഷോപ്പല്ലേ ആ അ ഞാനേ മുരിക്കാശ്ശേരിയിൽ നിന്ന് ഒരു കസ്റ്റമറായിരുന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ നമ്പർ കിട്ടിയായിരുന്നു അപ്പം ഞാനത് കണ്ടിട്ട് വിളിക്കുന്നതാണ് കേട്ടോ

ക്രീം പഫ്സ് അങ്ങനത്തെ പല ഐറ്റംസുണ്ടല്ലോ പഫ്സിൻ്റെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പഫ്സ് തന്നെയാണ് പഫ്സിൻ്റെ ഡിഫറൻറ്റായിട്ടുള്ള ഐറ്റംസുണ്ടല്ലോ അ അവിടെ ഏതൊക്കെ കാണുമായിരിക്കും എല്ലാ തരമുണ്ടല്ലേ ക്രീം പഫ്സൊക്കെ കാണുമായിരിക്കുമല്ലേ ആണോ ഒരു കുറച്ച് ക്രീം പഫ്സും പിന്നെ എഗ്ഗിൻ്റെ പഫ്സ് കഴിക്കുന്ന കുറച്ചു പേരൊക്കെ കാണുമായിരിക്കും അപ്പം നമുക്കത് കൃത്യം അറിയത്തില്ല അതു കൊണ്ട് ഒരു ഡിവൈഡ് ചെയ്ത് ഞങ്ങൾക്ക് തരാൻ പറ്റുമോ എന്തോ ഒരു മൊത്തം നമ്മൾ അൻപത് പേരെയാണ് ക്ഷണിച്ചിരിക്കുന്നത് അതിലൊരു ഇരുപത് പേർക്കോളം എഗ്ഗ് പഫ്സ് മതിയായിരിക്കും ബാക്കിയോ ബാക്കി ക്രീം പഫ്സും ബനാന പഫ്സും കൂടെയായിട്ട് തന്നാൽ മതി ആ മിക്സ് ചെയ്തു തന്നാൽ മതി അതു പ്രശ്നമില്ല പിന്നെ കോഫിയോ ആ കോഫി ബ്രൂ കോഫിയും വേണം പിന്നെ അല്ലാതെ കോഫിയും കൂടി വേണം സാദാ ചായ അ സാദാ ചായ ഇല്ലില്ല മധുരം കുറച്ച് മധുരം ഇടേണ്ട അല്ലാതെ കൊണ്ടു വന്നാൽ മതി മധുരം ഇടാതെ കൊണ്ടു വന്നാൽ മതി കേട്ടോ അ ഇവിടെ നിങ്ങൾ വീട്ടിലേക്ക് എത്തിക്കില്ലേ ഇതിന് റേറ്റ് എത്രയാണെന്നൊന്നു പറയാമോ എല്ലാം കൂടി എല്ലാം കൂടി കൂട്ടി റേറ്റ് എത്രയാണെന്നു പറയാമോ ഓ ഓക്കേ ഇനി പഫ്സിൻ്റെ ഹലോ വീട് മുരിക്കാശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അടുത്താണെ ഞാൻ ലൊക്കേഷനിട്ടു തന്നേക്കാം ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ പോരെ അ നമുക്ക് ഫങ്ഷൻ നടക്കുന്നതടുത്ത വീക്കിലാണ് പക്ഷെ അതിനു മുമ്പായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതുണ്ട് അതു കൊണ്ടാണ് വിളിച്ചതേ ഇരുപത് ഓക്കെ അഡിഷ്ണലായിട്ട് നിങ്ങൾ വേറെന്തെങ്കിലും അങ്ങനെ കൊടുക്കുന്നുണ്ടോ മ്മ് ഇപ്പം ഇതു പോലെ ഫങ്ഷൻസൊക്കെ വരുന്ന വീടുകളിൽ ഇപ്പം കല്യാണം അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം എന്തെങ്കിലും വേറെ കൊടുക്കുന്നതായിട്ടുണ്ടോ ഇപ്പം നമ്മൾ മെയിനായിട്ടും നമ്മൾ പഫ്സ് മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷെ അതു കൂടാതെ എന്തെങ്കിലും ഇപ്പം പഫ്സൊന്നും ഇഷ്ടമില്ലാത്ത ആൾകാരൊക്കെ ഉണ്ടാകുമല്ലോ അതു കൊണ്ട് അവർക്ക് കൊടുക്കാനായിട്ടെ എന്തൊക്കെ ഐറ്റം ഉണ്ടാകുമായിരിക്കും പറയാമോ അ പറഞ്ഞേക്കാം വേറെ എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ പറയാമോ മീറ്റ് റോളുണ്ടോ മീറ്റ് റോൾ അതിനെത്ര ആയിരിക്കും ഇരുപതല്ലേ ഓക്കെ അപ്പം ഞങ്ങൾ വാട്സപ്പ് ചെയ്തേക്കാം കേട്ടോ പിന്നെ കോൺടാക്ട് ചെയ്തോളാം അപ്പം അടുത്ത വീക്ക് ഫസ്റ്റ് ഡേ തന്നെയാണ് നമ്മുടെ ഫങ്ഷൻ നടക്കുന്നത് അൻപത് പേരെ ഉദ്ദേശിച്ചാണ് പക്ഷേ എത്ര പേര് കറക്ടങ്ങനെ വരുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പം അതു കൊണ്ട് എക്സ്ട്രാ കുറച്ച് എന്തോ പതിനഞ്ചാണല്ലേ നേരത്തെയൊക്കെ പത്തു രൂപയായിരുന്നു ഓക്കെ ഓക്കെ ഓക്കെ വില കൂടുതലായോ ഇതു നമ്മുടെ കോഫി ഷോപ്പ് എവിടെയായിട്ടാണെന്നൊന്നു പറയാമോ സിറ്റി തന്നെയാണോ ആ ഇൻക്കേസ് നമുക്ക് വരാൻ പറ്റിയില്ലെങ്കിലെ വീണ്ടും ഒന്നു കൂടീ കോൺടാക്റ്റ് ചെയ്യണമല്ലോ ആ പിന്നെ ഇത് കൊണ്ടു വരുമ്പോൾ ഉണ്ടല്ലോ നല്ല ഹോട്ടായിരിക്കണം എപ്പോഴും തണുത്തിരിക്കാൻ പാടില്ലല്ലോ അപ്പം നല്ല ചൂടായിട്ട് കൊണ്ടു വരണെ